നമുക്കിപ്പോൾ ഗ്രാമീണ മേഖലയിൽ ഉള്ളവർക്ക് പല പല സ്ത്രീകൾക്ക് ആയിക്കോട്ടെ പല പല രീതിയിലുള്ള വായ്പ അല്ലെങ്കിൽ നയങ്ങള് എന്താ പറയുക പല പദ്ധതികളും നമുക്ക് ഗ്രാമീണ സ്ത്രീകൾക്കായിട്ട് നമ്മൾ ഇപ്പോൾ സർക്കാര് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പ്രാഥമിക ജോലി ഇല്ലാത്തവരെ നോക്കുകയാണെന്ന് പറയുമ്പോൾ ജോലി ഇല്ലാത്തവർക്കാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ക്ലാസ്സ് നമ്മുടെ ട്രൈനിങ്ങുകൾ അവർക്ക് എന്തെങ്കിലും ജോലി അതായത് ഇപ്പോൾ അധികം വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇല്ലാത്തവർക്കാണെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റണ ജോലിയാണ് ഇപ്പോൾ ചില സമയത്താണെങ്കിൽ ഈ തുന്നലിൻ്റെ ക്ലാസ്സുകൾ പിന്നെ അതുപോലെ ഈ കംപ്യൂട്ടറിൻ്റെ ക്ലാസ്സുകള് പിന്നെന്താണ് ഈ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത് പിന്നെ നമ്മുടെ ഫാമൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ടിപ്പോൾ കോഴി ഫാം അല്ലെങ്കിൽ പച്ചക്കറീൻ്റെ ഫാമുകൾ അല്ലെങ്കിൽ എന്താ പറയുക ഈ പശു പശു തൊഴുത്ത് അങ്ങനത്തെ കാര്യങ്ങള് അപ്പോൾ ഇതിനൊക്കെ വേണ്ടീട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ അവർക്ക് ഇപ്പോൾ അത്യാവശ്യം വിദ്യാഭ്യാസം എങ്ങനെയാണ് ചെയ്യാനുള്ള ചുറ്റുപാടും സാഹചര്യവും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ അവര് കൃഷി ഭവൻ വഴിയോ അല്ലെങ്കിൽ പഞ്ചായത്ത് വഴിയോ ഒക്കെയോ റെജിസ്റ്റർ ചെയ്തിട്ടുള്ള ആൾക്കാര് കുറച്ചാൾക്കാര് ഒരുമിച്ചു കൂട്ടി അവർക്കൊരു ക്ലാസ്സെടുത്തു കൊടുത്ത് ഒരു കുറച്ച് ഒരു കൂട്ടം അതായത് പത്തോ പന്ത്രണ്ടോ സ്ത്രീകള് ഒരുമിച്ച് ഒരു കൂട്ടമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലിപ്പോൾ പച്ചക്കറി കൃഷി ആണെങ്കിലും അതുപോലെ മാട് വളർത്തല് ആട് വളർത്തല് അങ്ങനത്തെ കൃഷികള് അപ്പോൾ കൂടോടു കൂടി കുറച്ച് കോഴിയെ നല്കുക എന്നിട്ട് അതേ അപ്പോൾ ചന്തയിൽ കൊണ്ട് വിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ആക്കി കൊടുക്കുക അങ്ങനെ അങ്ങനെയുള്ള കൃഷി അവർക്ക് അതിനു വേണ്ടിയുള്ള ക്ലാസ്സുകള് നൽകുക എങ്ങനെയാണ് എന്ത് ഭക്ഷണം കൊടുക്കണം എങ്ങനത്തെ രീതിയിൽ പരിപാലിക്കണം അതിനൊക്കെ പറഞ്ഞു കൊടുക്കുക അത് ജോലി ഇല്ലാത്തവർക്ക് ഇപ്പോൾ ജോലി ഉള്ളവർക്കാണ് പറയുമ്പോൾ അവർക്ക് എങ്ങനെയാണിപ്പോൾ എന്തെങ്കിലും അത്യാവശ്യത്തിന് ലോൺ എടുക്കാനോ അപ്പോൾ അവർക്ക് കുറച്ച് പൈസ കമ്മിയായിട്ട് ലോണുകള് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക അങ്ങനത്തെ ഒക്കെയാണ് നമ്മുടെ ഇപ്പോൾ ഗ്രാമങ്ങളിൽ പൊതുവേ കണ്ട് വരുന്ന സ്ത്രീകൾക്കായിട്ടുള്ള പദ്ധതികളിൽ നയമൊക്കെ വരുന്നത്